ഹലോ ആ പറഞ്ഞോളു ആഹാ ആ നമ്മുടെ വന്നിട്ട് സ്റ്റേഷ്നറിക്കടയാണ് നമ്മുടെ ഇവിടെ ബുക്ക് പേനാ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ത് ഓഫീസ് ആയിരുന്നു അതേയല്ലേ ആ അപ്പം അങ്ങനെയാണേ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുമല്ലോ ബുക്ക് ഉണ്ട് നമുക്ക് പേനകള്ണ്ട് പല തരത്തിലുള്ള പേനകൾ ജല് പേന ബോള് പേന അങ്ങനെയുള്ള പേനകൾ ഉണ്ട് പിന്നെ സ്റ്റിക്കീ നോട്ട് ഫയല് കുട്ടികള്ക്ക് ആവുമ്പോൾ ഫയൽ ഒക്കെ വേണ്ടി വരുമല്ലോ ആ പല സൈസിലുള്ള ഫയൽ ഉണ്ട് മറ്റേ ആ എല്ലാം ഉണ്ട് അങ്ങനെത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ എന്തൊക്കെയാ സ്റ്റേപ്ലറ് വേണ്ടി വരും പിന്നെ പേപ്പര്സ് ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതലും വേണ്ടത് ഏ ഫോര് സൈസും ഏ ത്രീയും നമുക്ക് എല്ലാം ഉണ്ട് ഏ ത്രീ ഏ റ്റു എല്ലാം ഉണ്ട് ആഹ് അതെല്ലാം ഉണ്ട് ടാഗ് പിന്നെ സെല്ലോ ടേപ്പ് സ്റ്റേപ്ലറ് പേപ്പര് പിന്സ്സ് നമുക്ക് എല്ലാം ഉണ്ട് പിന്നെ സ്കൂളില് മറ്റെ ബോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബോഡ് പിന്ന്കളും ബോഡും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നൊ ഓഡർ അനുസരിച്ചിട്ട് ആണെങ്കിലും പറഞ്ഞാലും മതി ഉണ്ട് ഉണ്ട് അതെ മ് ആ ആ പിന്നെ സാധാരണ കുട്ടികള്ക്ക് ഇതൊക്കെത്തന്നെയാണ് വേണ്ടത് പിന്നെ ഈ എക്സാം എക്സാം ബോഡക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ട് എക്സാം ബോഡും പിന്നെ ചോക്ക് ഒക്കെ ഇല്ലേ ബ്ലാക്ക് ബോഡിൽ എഴുതുന്ന ചോക്ക് മാര്ക്കറ് പിന്നെ കുട്ടികള്ക്ക് ഹൈലൈറ്റിങ് മാര്ക്കറ് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് സാധാരണ എടുക്കുമ്പോൾ ഒരു ഓഫീസിലേക്ക് നമ്മൾ ഇപ്പം സ്ഥിരം കസ്റ്റമര്സ് ആണെങ്കില് നമ്മൾ കുറച്ച് കൊടുക്കാറുണ്ട് ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കുറച്ചൊക്കെത്തരും അത് നിങ്ങൾ എടുക്കുന്ന സാധനം പോലെ ഇപ്പം പേനയാണെങ്കിലും പല തരത്തിലുള്ള പല ബ്രാന്ഡിന്റെ പേനകളുണ്ടല്ലോ അപ്പം അതിൻ്റെ വില അനുസരിച്ച് നമ്മൾ എന്തായാലും ഒരു റീസണബിള് റേറ്റിൽ നമ്മൾ കുറച്ച് തരുന്നതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പം പിള്ളേര്ക്ക് ഈ എഴുതിത്തുടങ്ങുന്ന പിള്ളേർ തൊട്ട് പത്തിലൊക്കെ പഠിക്കുന്ന പിള്ളേർ എഴുതുന്ന പേന എല്ലാം ഉണ്ട് നമുക്ക് ഇപ്പം സെല്ലോ ഉണ്ട് പിന് പോയൻറ് ഉണ്ട് പിന്നെ മൂന്ന് രൂപയുടെ പേന തൊട്ട് തുടങ്ങുന്നുണ്ട് പെന് പെന്സില് കളര് പെന്സില് ക്രയോണ്സ്സ് കൊച്ചു പിള്ളേർക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബള്ക്ക് ആയിട്ട് നമ്മൾ സപ്ലേ ചെയ്യാറുണ്ട് മനസിലായി മനസിലായി ആ ബ്രൗണ് പേപ്പറെക്കെ വേണ്ടി വരില്ലേ നിങ്ങക്ക് ആ ബ്രൗണ് പേപ്പറും അങ്ങനെത്തെ നോട്ട്ബുക്ക്കൾ അതിങ്ങനെ മറ്റേ ടൂ ലൈന് ഉണ്ട് മാച്ചിങ് നോട്ട്ബുക്ക് പ്ലേയ്ന് നോട്ട്ബുക്ക് എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ ബള്ക്ക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തരുന്നെയാ അപ്പം നമ്മൾ റേയ്റ്റ് ഒക്കെ കുറച്ച് തരും ആ ഒരു ബഡ്ജറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു കുട്ടിയൊക്കെ വന്ന് വാങ്ങുമ്പം അധികം വരില്ല പക്ഷെ അത് ബള്ക്ക് ആയിട്ട് എടുക്കുമ്പത്തേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം സാധാരണ നമ്മളൊരു ട്വന്റി പേര്സന്റ് ഡിസ്ക്കൗണ്ട് ആണ് കൊടുക്കാറുള്ളത് സ്കൂൾ ആവശ്യത്തിലേക്ക് ആയതുകൊണ്ട് ഒരു ആയിരം രൂപയിലൊക്കെ എടുക്കുന്നവരും ഉണ്ട് അയ്യായിരം രൂപയ്ക്ക് എടുക്കുന്നവരും ഉണ്ട് അത് ആവശ്യം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡിസ്ക്കൗണ്ടും അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് ആ ഏത് ഏത് സ്ഥലത്തായിരുന്നു കോഴഞ്ചേരി അല്ലേ കോഴഞ്ചേരിയിൽ തന്നെയാ കോഴഞ്ചേരിയിൽ തന്നെയാ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ ഓ ഓക്കെ